വൈദ്യുതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ അതും നമ്മുടെ വർക്കിനെയൊക്കെ വൈദ്യുതി ഇല്ലെങ്കിൽ വളരെ അധികം ബാധിക്കും കാരണം വർക്കെന്ന് പറയുന്നത് കോക്കനട്ട് മില്ലാണ് മീൻസ് തേങ്ങയൊക്കെ ആട്ടി വെളിച്ചെണ്ണ ആക്കുന്ന മില്ലാണുള്ളത് അപ്പോൾ അവിടെയിപ്പോൾ വൈദ്യുതി ഇല്ലയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതിപ്പോൾ വെളിച്ചത്തിനാണെങ്കിലും അതുപോലെ എണ്ണ ആട്ടാനാണെങ്കിലും നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ട് വന്നിട്ട് തോട്ടങ്ങളിൽ പോയിട്ട് ലോഡ് കണക്കിന് തേങ്ങ ഇട്ടിട്ട് വരാറാണ് പതിവ് അതു വന്ന് ഇവിടെ കൊണ്ടു വന്ന് അത് ആട്ടും ആട്ടും എന്ന് പറഞളഞ്ഞാൽ ഒരു ഒരു ടിപ്പർ അല്ലെങ്കിൽ ഒരു ലോറിക്കുള്ള തേങ്ങയൊക്കെ കൊപ്രയൊക്കെ ആയിരിക്കും അതൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും ആട്ടുക ഒരുമിച്ച് ആട്ടണ സമയത്ത് നമ്മുടെ വൈദ്യുതി ഇല്ലയെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ നഷ്ടമാണ് അത് നമ്മുടെ ഉപജീവനമാർഗ്ഗത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് കാരണം ആ ഇതിനെ ആശ്രയിച്ചിട്ടാണ് വർക്കിനെ ആശ്രയിച്ചാണ് ഒരുപാട് ജനങ്ങൾ അവിടെ പണിയെടുക്കുന്ന ഒരുപാട് പേര് തൊഴിലാളികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അന്നവിടെ വൈദ്യുതി കിട്ടില്ല പറഞ്ഞാൽ നമ്മുടെ എണ്ണ ആട്ടൽ അത് മിസ്സാകും അതു പോലെ അതിൻ്റെ ഉള്ളിൽ ഗോ ഡൗൺ ആണ് അപ്പോൾ വെളിച്ചം ഉണ്ടാവില്ല ഫുള്ള് ഇരുട്ടായിരിക്കും ഫു വൈദ്യുതിക്ക് വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒന്നാണ് ഈ വർക്ക് അതിന് അതും നമുക്ക് എണ്ണ നമ്മൾ ഹോൾസെയിലായിട്ടും റീട്ടെയിലായിട്ടും ഒക്കെ കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ പുറത്തേക്ക് കയറ്റി അപ്പം എക്സ്പോർട്ടിങ്ങും ഉണ്ട് പുറത്തേക്ക് കയറ്റി അയക്കലൊക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് അവരും വരും അവർ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇത്ര ലിറ്റർ എണ്ണ നമുക്ക് കൊടുക്കണം എന്നുണ്ട് അപ്പം അത് അവർക്ക് കൊടുത്ത കരാറിലാവും അപ്പം അതു കൊടുക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ പറ്റിയില്ലയെന്ന് പറഞ്ഞാൽ വൈദ്യുതിയൊക്കെ നഷ്ടം വൈദ്യുതി ഇല്ലായ്മ കൊണ്ട് നമുക്ക് എണ്ണ ആട്ടാൻ പറ്റിയില്ലയെന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ തന്നെ വളരെയധികം ബാധിക്കും പിന്നെ ഇൻവെർട്ടർ ഉണ്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യാറുണ്ട് അതു കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ കമ്പനി ഒക്കെ വളർന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പം കറണ്ട് പോകുന്നുവെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇൻവെർട്ടറും വർക്കിങ്ങാണ് ഇൻവെർട്ടറുള്ളതു കൊണ്ടാണ് ഇടക്ക് കറണ്ട് പോകുമ്പോഴൊക്കെ ഇൻവെർട്ടർ എപ്പോഴും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കറണ്ട് തന്നെയാണ് പോസ്സിബിൾ ആയിട്ടുള്ള നല്ല വഴി ഇൻവെർട്ടർ യൂസ് ചെയ്യാറുണ്ട് അത്യാവശ്യം കറണ്ട് പോകുമ്പോഴൊക്കെ ഇൻവെർട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്